എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്നിവ ശേഖരിക്കുന്നതിൽ കൂടുതൽ ആളുകൾ ഏർപ്പെടണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സ്റ്റാമ്പുകളെന്നു പറഞ്ഞാൽ അത് നല്ലൊരു ഹോബിയാണ് സ്റ്റാമ്പ് കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷനെന്നു പറഞ്ഞാൽ അത് നല്ലൊരു ഹോബി മാത്രമല്ല നമ്മൾക്ക് ചെറിയ ചെറിയ ചെറിയ ചെറിയ എന്താണ് സ്റ്റിക്കർ പോലെയുള്ള സ്റ്റാമ്പുകൾ ജവഹർലാൽ നെഹറൂവിൻ്റെയുണ്ട് മഹാത്മാഗാന്ധിയുടെയുണ്ട് ശിശുദിനമുണ്ട് പിന്നെ പത്ത് പൈസ സ്റ്റാമ്പ് ഇരപത് പൈസ സ്റ്റാമ്പ് വൺ ഒരു രൂപ സ്റ്റാമ്പ് രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ നിരവധി സ്റ്റാമ്പുകൾ ഇതിൻ്റെ ഒരു കണക്ഷ ഇത് ഈ സ്റ്റാമ്പുകളുടെ കളക്ഷൻ നല്ല സ്റ്റാമ്പുകളുടെ കളക്ഷൻ നല്ലയൊരു ഹോബിയാണ് ആ ഹോബി വളർത്തി കൊണ്ട് പോകുന്നതും നല്ലതാണ് പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ സ്റ്റാമ്പ് കളക്ഷനും അവർക്ക് കൂടുതലും മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാമ്പ് കളക്ഷൻ കളക്ഷൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല പിന്നെ നാണയങ്ങൾ നാണയങ്ങളെന്നു പറഞ്ഞാൽ പഴയ നാണയങ്ങളൊന്നും ഇന്ന് കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല ഇന്നത്തെ ഇന്നത്തെ ഒരു രീതിയിൽ കുട്ടികളാകെ കണ്ടിരിക്കുന്ന നാണയങ്ങളെന്നു പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ തുട്ട് അങ്ങനെയുള്ള നാണയങ്ങളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ കൂടുതലായും കണ്ടിരിക്കുന്നത് പണ്ട് കാലത്തുള്ളത് പണ്ടെന്ന് പറഞ്ഞാലൊരു പത്ത് ഇരുപത് വർഷം മുമ്പ് അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ അങ്ങനെയുള്ള നാണയങ്ങളുണ്ടായിരുന്നു ഈ നാണയങ്ങൾ കളക്ട് ചെയ്യുകയെന്നുള്ളത് നല്ലൊരു ഹോബിയാണ് ഈ നാണയങ്ങൾ പല വലുപ്പത്തിലുള്ള നാണയങ്ങളാണല്ലോ ചെമ്പ് വെള്ളി കളറുള്ളതുണ്ട് ചെമ്പ് കളറുള്ളതുണ്ട് ഗോൾഡൻ കളറുള്ളതുണ്ട് അങ്ങനെ പല നിറത്തിലുള്ള നാണയങ്ങൾ ഉണ്ട് ഈ നാണയങ്ങൾ കളക്ട് ചെയ്യുന്നത് ഈ ഇത് പല തരത്തിലുള്ള നാണയങ്ങൾ നാണയങ്ങൾ കളക്ട് ചെയ്യുന്നതിലൂടെ നല്ലൊരു ഒരു ഹോബിയാണ് ഈ നാണയ കളക്ഷനെന്നു പറയുന്നത് പിന്നെ ഇതിങ്ങനെ ശേഖരിക്കുന്നത് നല്ലൊരു ഹോബിയാണ് പിന്നെ കല്ലുകൾ കല്ലുകളെന്നു പറഞ്ഞാൽ അത് പല പല വലിപ്പത്തിലുള്ള കല്ലുകളുണ്ട് ചെറിയ കല്ലുകളുണ്ട് നല്ല മിനുക്കമുള്ള കല്ലുകളുണ്ട് നല്ല എന്താ പറയുക നല്ല ഗ്ലാസ് പോലെയുള്ള കല്ലുകളുണ്ട് അതൊക്കെ നല്ലൊരു ഒരു ഒരു എന്താണ് പറയുക നല്ലൊരിതാണ് ഈ കല്ലുകൾ ശേഖരിക്കുക എന്നുള്ളത് ഈ കല്ലുകളും സ്റ്റാമ്പുകളും നാണയങ്ങളൊക്കെ ശേഖരിക്കുന്നതിലൂടെ നല്ലൊരു ഹോബിയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങളൊന്നും കല്ലുകളും സ്റ്റാമ്പുകളും നാണയങ്ങളുമൊന്നും ശേഖരിക്കുകയില്ല ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ കൂടുതലും എന്താണ് പറയുന്നത് ഈ കൂടുതലും മാധ്യമങ്ങളിലോടാണ് ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കൂടുതൽ താൽപര്യം അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് എന്നാണ് മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഇഷ്ടം അവർ സ്റ്റാമ്പ് കളക്ഷനോ നാണയ കളക്ഷനോ കല്ല് കളക്ഷനോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്കങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കിഷ്ടമല്ല അവർക്ക് കൂടുതലിഷ്ടം മൊബൈലിൽ പണിയുന്നതും സിനിമ കാണുന്നതും കമ്പ്യൂട്ടർ കാണുന്നതും അങ്ങനെയൊക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടങ്ങൾ അതാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ പക്ഷെ പഴയ തലമുറയാണ് കൂടുതലും ഇങ്ങനെയുള്ള കളക്ഷനുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് പഴയ തലമുറയാണ് ഇന്നത്തെ തലമുറയെ കാട്ടിലും ഇങ്ങനെയുള്ള കളക്ഷനുകൾക്കൊക്കെ മെയിനായിട്ടും നന്നായി എന്താണ് വർക്ക് ചെയ്യുന്നതും അത് ശേഖരിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നതും എല്ലാം പഴയ കാലത്തുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലത്തുള്ള കുട്ടികളൊന്നും അങ്ങനെയൊന്നും ഒന്നിനോടും ഒരുതാ ഒന്നിനോടും ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ഒന്നിനോടും ഇങ്ങനെയുള്ള ഒരിഷ്ടം അവർക്കില്ല ഇപ്പം സ്റ്റാമ്പ് ഒരു സ്റ്റാമ്പ് കിട്ടി അവരന്നേരമെടുത്ത് കളയും നാണയങ്ങൾ കിട്ടിയ ഓ ഇതെന്തിനാണ് ശേഖരിക്കുന്നത് അങ്ങനെയൊരു രീതിയാണ് ഇന്നത്തെ കുട്ടികൾക്ക് എന്നാൽ പഴയ കാലത്തുള്ള കുട്ടികൾ ഇതെല്ലാം ശേഖരിച്ച് വെയ്ക്കുമായിരുന്നു നല്ല നല്ല എന്താണ് സ്റ്റാമ്പുകളൊക്കെ നല്ല ബുക്ക് മേടിച്ച് ബുക്കുകളിൽ ഒട്ടിച്ച് വെക്കും നാണയങ്ങൾ ശേഖരിച്ച് വെക്കും അങ്ങനെ മ് ശേഖരിച്ച് വെക്കും നാണയങ്ങൾ ഒട്ടിച്ചു വെക്കുന്ന കുട്ടികളുണ്ട് പ ടിന്നുകളാക്കി പല കളക്ഷനുകളാക്കി വെക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തു കൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ബാധകമല്ല